ഞങ്ങളുടെ പ്രദേശത്ത് സ്കൂളിലൊക്കെ ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതായത് അതായത് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സാമൂഹ്യ ശാസ്ത്രം മറ്റേ അതായത് ചരിത്രം അതിലാണ് കൂടുതലും ചരിത്രമൊക്കെ പഠിക്കാനുള്ളത് അതായത് പണ്ടത്തെ കാലത്തെ കുറിച്ചും അങ്ങനെ ഒരുപാട് അതായത് കുട്ടികൾക്കൊന്നും അങ്ങനെ വലിയ ചരിത്രത്തെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നുവെച്ചുണ്ടെങ്കിൽ അതായത് സ്വതന്ത്രദിന കാലങ്ങൾ അതായത് സ്വതന്ത്ര ദിനത്തിലെ ചരിത്രങ്ങളും അതായത് ഗാന്ധിജീൻ്റെ അതായത് കഷ്ടപ്പാടുകളും അതായത് നമുക്ക് സ്വാതന്ത്രം നേടിത്തന്നതിനെ കുറിച്ചും ആ ചരിത്രങ്ങളൊക്കെ ഒരുപാട് നമുക്ക് സ്കൂളിലോക്കെ പഠിച്ചു സ്കൂളിൽ നിന്നാണ് നമ്മൾ കൂടുതലും അതൊക്കെ പഠിച്ചത് തന്നെ അതായത് സ്കൂളിന്നാണ് നമ്മൾ കൂടുതലതൊക്കെ അറിഞ്ഞത് അറിഞ്ഞത് അപ്പോൾ ചരിത്രമായി അതായത് ഇതൊക്കെ തന്നെയാണ് ചരിത്രപരമായ സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബുക്കിലുണ്ട് നമ്മൾ കൂടുതലായും നമ്മൾ വീട്ടിന്നല്ല നമ്മൾ സ്കൂളിന്നാണ് അതൊക്കെ ഈ ചരിത്രപരമായ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മളത്രേം ഫ്രീഡത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെയൊക്കെ കഷ്ടപ്പാടുകൊണ്ടാണ്